ഹലോ

അതുപോലെ ചേച്ചിക്ക് ഏറ്റവും ഉണ്ടാക്കാനിഷ്ടമുള്ള ഒരു ഒരു വിഭവം ഒന്ന് പറയാമോ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ആ പാചക രീതിയേക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ പാചകം എനിക്ക് ഇഷ്ടപ്പെടാൻ കൂടുതല് കാരണമെന്ന് പറഞ്ഞാൽ എൻ്റെ മമ്മി ഒരു ടീച്ചറാണ് കൂടുതല് സമയം മമ്മീനെ എനിക്ക് അടുത്ത് കിട്ടാറില്ലായിരുന്നു അപ്പോള് എന്തെങ്കിലുമൊക്കെ കഴിക്കണമെങ്കില് ഞാൻ എൻ്റെ സഹോദരങ്ങൾക്ക് ഞാൻ വച്ചു ഞാൻ ശരിയാക്കി കൊടുക്കണമായിരുന്നു അപ്പോള് അങ്ങനെ ഞാനോരോന്ന് ചെയ്യാനായിട്ട് പഠിച്ചു ഓൾറെഡി ഇങ്ങനെ പഠിച്ചുകഴിഞ്ഞപ്പോള് എൻ്റെ പപ്പായാണേലും എൻ്റെ പാചകത്തെക്കുറിച്ച് രസമുണ്ടാക്കുമ്പോള് അവിയലൊക്കെ ഉണ്ടാക്കുമ്പോള് പപ്പായ്ക്ക് വളരെ ഇഷ്ടമായിരുന്നു പിന്നെ കട്ട്ലേയ്റ്റ് പ്രത്യേകമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ മിക്കവാറുവുണ്ടാക്കുമായിരുന്നു അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അത് എൻ്റെ പപ്പായ്ക്കും എൻ്റെ സഹോദരങ്ങൾക്കും അത് വളരെ ഇഷ്ടമായിരുന്നു അങ്ങനെ ഞാന് അവരിഷ്ടം എന്ന് പറയുമ്പോഴത്തേക്ക് നല്ലതാണ് നല്ല ടേസ്റ്റിയാണെന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് കൂടുതല് ഇതിനോട് താൽപര്യം തോന്നി ഉണ്ടാക്കാനായിട്ട് താൽപര്യം ഒരു പ്രചോദനം തോന്നിത്തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ അവിടെ വീട്ടിൽ വെച്ച് ചെറുപ്പത്തിലെ തന്നെ അങ്ങനെ പാചകത്തിനോട് ഞാൻ കൂടുതല് ഇഷ്ടം തോന്നിത്തുടങ്ങിയിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടം കുട്ടികൾക്ക് കഴിക്കാൻ ഇഷ്ടം കുട്ടികൾക്ക് താൽപര്യവും കട്ട്ലേറ്റാണ് അത് ഉണ്ടാക്കുന്ന രീതിയേക്കുറിച്ച് ഞാനിവിടെ പറയാം ബീഫ് കട്ട്ലേറ്റാണ് സാധാരണ ഞാനുണ്ടാക്കാറ് പിന്നെ ചീര കൊണ്ടും ഉണ്ടാക്കാറുണ്ട് കിട്ടുന്ന സാധനങ്ങളൊക്കെ ചെറിയ ചെറിയ കിഴങ്ങ് ഉള്ളതുകൊണ്ടും ചെറിയ ഓരോ സാധനങ്ങളും കൈയില് കിട്ടുമ്പോള് അത് പല വിധത്തിലും പല രീതീലും ഞാനുണ്ടാക്കാറുണ്ട് അതിലേറ്റവും കൂടുതലായിട്ടുണ്ടാക്കുന്നത് ബീഫ് കട്ട്ലേറ്റാണ് ബീഫ് പൊടി പൊടി ആയി ചെറുതായിട്ട് ബീഫ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത ബീഫ് കുക്കറിലിട്ട് കുരുമുളകും ഉപ്പും മഞ്ഞളും ഒക്കെ മുളകുപൊടിയും ഒക്കെ ചേർത്ത് നന്നായിട്ട് കുക്കറിലിട്ട് കുറെ വേവിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക വേവിച്ചെടുത്തതിന് ശേഷം അത് മിക്സിയിലിട്ട് നല്ല പീസ് മാത്രം എടുത്ത് അതില് എല്ലൊന്നുംകൂടാതെ ബോൺ ലെസ്സ് ആയിട്ടുള്ള പീസെടുത്ത് മിക്സിയിലിട്ട് പൊടിക്കുക പൊടിച്ച് എടുത്ത് അത് മാറ്റി വയ്ക്കുക അതിനു ശേഷം അതിനുള്ള സവോള പൊടി പൊടി അരിയുക ഇഞ്ചി വെളുത്തുള്ളി ഇവ അരിഞ്ഞിട്ട് പച്ചമുളക് എല്ലാം വേറെ വേറെ ആയിട്ട് അരിഞ്ഞ് മാറ്റി വയ്ക്കുക അത് അതെല്ലാം മാറ്റിവച്ചതിന് ശേഷം നമുക്ക് ഒരോന്നോരൊന്നായിട്ട് ഒലത്തിയെടുക്ക എടുക്കണം എന്ന് ചീനച്ചട്ടി അടുപ്പത്തിൽ വെച്ചിട്ട് എണ്ണ ഒഴിച്ച് കടുക് താളിച്ച് ആദ്യം ഈ സവോള വഴറ്റിയെടുത്ത് നല്ല ചുവന്ന നിറം ആവുന്നിടം വരെ വഴറ്റിയെടുക്കുക അതിനുശേഷം പച്ചമുളക് ഇഞ്ചി പിറകെപ്പിറകെയായിട്ട് കറിവേപ്പിലയും ചെറുതായിട്ട് അരിയണം പൊടിഞ്ഞ് പൊടിച്ച് ചെറുതായിട്ട് അരിഞ്ഞ് വേണം കരിവേപ്പില ചേർക്കാനായിട്ട് മറ്റു കറികൾക്ക് ചേർക്കുന്നത് പോലെ ഒന്നോടെയിടാൻ പാടില്ല ഇതിന് പൊടി പൊടിച്ച് അരിഞ്ഞ് ചേർത്ത് ഇത് ഇട്ട് നന്നായിട്ട് ചുവന്ന് വരുന്ന വിധത്തില് ഈ മസാല ഇത് ചേരുമ്പോഴത്തെ മസാലകളെല്ലാം ചേർക്കണം ഇറച്ചി മസാലയും കുരുമുളക് പൊടിയും മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ചേർക്കത്തില്ല കേട്ടൊ ഇവയെല്ലാം ചേർത്ത് വീണ്ടും ഒന്നുംകൂടെ ഈ സവോള എല്ലാംകൂടെ ഓ മിക്സായി നന്നായിട്ട് മിക്സായി വരുമ്പോഴത്തേക്ക് നമ്മള് പൊടിച്ച് മിക്സിയില് പൊടിച്ചുവച്ചിരിന്ന നല്ല ഉടച്ചു വെച്ചിരിക്കുന്ന ബീഫ് ഇതിൻ്റെ കൂടെ ഇട്ട് ഇളക്കുക നന്നായിട്ട് ചേരുവയെല്ലാംകൂടി ബീഫെ ഈ പൊടിച്ച ബീഫേല് ചേരണം ചേരുവകളെല്ലാമൊന്നായിട്ട് വന്നതിനു വന്നതിനുശേഷം അതിൻ്റെ കൂടെത്തന്നെ നമ്മള് ഇതിൻ്റെടയ്ക്ക് ചെയ്യണം കിഴങ്ങ് പുഴുങ്ങിവയ്ക്കണം കിഴങ്ങ് മസ്റ്റാണ് കിഴങ്ങ് പുഴുങ്ങിവച്ച് അത് നന്നായിട്ട് പൊടിയണം പൊടിച്ച് കഷ്ണങ്ങള് ഒരു കഷ്ണം പോലുമില്ലാതെ നന്നായിട്ട് പൊടിച്ച് ഇതിൻ്റെ കൂട്ടത്തില് ചേർത്ത് നല്ല കുഴച്ച് ഒരു ഒരു ഉരുളപ്പരുവത്തിലെടുക്കത്തക്ക വിധത്തിൽ നല്ല മയത്തോടെ കുഴച്ചു വയ്ക്കുക അതിന് ശേഷം അത് കട്ട്ലേറ്റ് പരുവത്തിൽ ആകൃതിയില് എടുത്ത് എന്നിട്ട് മുട്ട മുട്ടയുടെ വെള്ള മഞ്ഞക്കുരു എടുത്താലത് പതഞ്ഞ് വരും എണ്ണ പതഞ്ഞുവരും അതുകൊണ്ട് മുട്ടയുടെ ഒരു മൂന്നാലഞ്ച് മുട്ടയുടെ വെള്ള എടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് അതും പിന്നെ റെസ്ക്കിൻ്റെ പൊടി അല്ലെങ്കില് റവ ആയാലും മതി റെസ്ക്കിൻ്റെ പൊടി റസ്ക് നന്നായിട്ട് പൊടിച്ചിട്ട് നന്നായിട്ട് പൊടിയണം പൊടിച്ചെടുത്തിട്ട് മുട്ടയില് മുക്കിയിട്ട് റെസ്കിൻ്റെ പൊടിയിൽ മുക്കി എണ്ണയിൽ എണ്ണയിൽ നമുക്ക് വറത്ത് കോരിയെടുക്കാം